ഞാനേ നിങ്ങളുടെ സ്വിഗ്ഗിയിൽ നിന്ന് ഒര് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ആ എൻ്റെ പേര് സ സനീഷ് ആ അതെ നിങ്ങൾ ഈ എപ്പഴാണ് വരിക എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം എനിക്ക് നല്ല രീതിയിലുള്ള വിശപ്പ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ എപ്പഴാണ് വരിക എന്ന് അറിയുകയായിരുന്നെങ്കില് കാര്യമുണ്ടായിരുന്നു പുറപ്പെട്ടിട്ടുണ്ടോ അല്ല എനിക്ക് അവരെ ഒന്ന്കണക്ട് ചെയ്തു തരാൻ വേണ്ടി പറ്റുമോ കാരണം ഞാന് കറക്ട് വഴി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല അത് അവര് ഇനിയിപ്പം സ്ഥ സ്ഥലം തെറ്റിപ്പോയോ എന്ന് അറിയില്ല കാരണം ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു നിങ്ങളുടെ അവിടുന്ന് റസ്റ്റ്റ്റോറൻറ്റിൽ നിന്ന് ഇവിടെ എത്തേണ്ടേ ഓ ഒന്ന് ഒന്ന് കണക്ട് ചെയ്ത് തരുമോ ഓക്കെ ഓക്കെ ഞാ ഒരു മിനിറ്റ് ആ ഓക്കെ ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്യാം ആ ഹലോ ആ നിങ്ങൾ ഇപ്പോൾ ഞാന് സനീഷ് ആയിരുന്നു അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയാണ് എത്തിയത് ആ ഇവിടെ എത്താൻ ആയോ അല്ല വേഗം വരികയായിരുന്നു എങ്കിൽ നല്ലതായിരുന്നു കാരണം നിങ്ങൾക്കിപ്പോൾ ഒന്നാമത് വഴിയറിയില്ലല്ലോ ഞാൻ ഇവിടെ പുറത്ത് ഇറങ്ങി നിൽക്കാം ആ എൻ്റെ ഫ്ളാറ്റിൻ്റെ ഫ്രണ്ടില് നിൽക്കാം നിങ്ങൾ വന്നു കഴിഞ്ഞാല് മേടിക്കാൻ സുഖമാണല്ലോ കാരണം എനിക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ടേ അപ്പോൾ നിങ്ങൾ വേഗം ഒന്ന് വരികയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആ ഓക്കെ ഓക്കെ വേഗം പോര്